കൂടുതൽ ദിവസങ്ങളിൽ പുറത്ത് പോകാണമെങ്കിൽ ഞാൻ എൻ്റെ ചെടിയെ പരിപാലിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിയെയാണ് ഏൽപ്പിക്കാറ് ആ ചേച്ചിയോട് ഞാൻ പറയും രാവിലേം കുറച്ച് വെള്ളം വന്ന് ഒഴിയ്ക്കണം വൈകിട്ടും ഒഴിയ്ക്കണം എന്നക്കെ വന്നു പറയും ഒരു മൂ ഒരുപാട് ദിവസത്തേക്ക് ഒന്നും അങ്ങനെ പോകാറില്ല കൂടി പോയാൽ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് വേണ്ടിയേ ഉള്ളൂ രണ്ട് മാസം മുന്നേ ഞങ്ങൾ ഒരു മൈസൂർക്കൊരു ടൂറ് പോയായിരുന്നു ഒരു നാല് ദിവസത്തെ ഒരു ട്രിപ്പ് ആ ഒരു സമയത്ത് ഞാനീ ചേച്ചിയെ ആണ് ഏൽപ്പിച്ചിരുന്നത് ആ ചേച്ചി വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ ചെടികൾക്കെല്ലാം രാവിലെയും വൈകുന്നേരവും എല്ലാം വെള്ളം ഒഴിച്ചു അവയെ നന്നായിട്ടു തന്നെ പരിപാലിപി പരിപാലിച്ചു അപ്പം ഞാൻ ഫോൺ വിളിച്ച് ആ ചേച്ചിയോട് ചോദിക്കുമായിരുന്നു ചേച്ചീ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചോന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം ആ ചേച്ചി പറഞ്ഞു ആ ഒഴിച്ച് മോളെ എന്നൊക്കെ എനിക്ക് തിരിച്ച് മറുപടിയും തരുമായിരുന്നു ആ അങ്ങനെ ആ പിന്നെ അതുപോലെ തന്നെ കമ്പ് വെട്ടി കളയേണ്ടതൊക്കെ ആ ചേച്ചി അതിനനുസരിച്ച് തന്നെ വൃത്തിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു വളമിടെണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല കാരണം ഞാൻ അങ്ങനെ ഈ നാല് ദിവസത്തിനിടക്ക് വളമിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടു വളമൊന്നും ഇടാൻ ഞാൻ ആ ചേച്ചിയെ ഏൽപ്പിച്ചിരുന്നില്ല പക്ഷേ ആ ചേച്ചി കൃത്യമായിട്ട് തന്നെ വെള്ളമൊഴിച്ചിരുന്നു രാവിലേം വൈകുന്നേരവും തന്നെ കാരണം ഈ നാല് ദിവസമൊക്കെ നമുക്ക് വെള്ളമൊന്നും ലഭിച്ചില്ലെങ്കിൽ ഈ ചെടികളൊക്കെ ചിലപ്പം വാടി പോകാനും ഒക്കെ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞായിരുന്നു ചില ചെടികൾക്കക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഒരുപാടക്കെ വെള്ളം ഒക്കെ കിട്ടിയാൽ അവ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം ആ ചേച്ചി അതിനക്കെ കൃത്യമായിട്ട് തന്നെ കൃത്യ അളവിൽ തന്നെയാണ് വെള്ളം ഒക്കെ ഒഴിച്ചത് പിന്നെ ഞാനാ ചേച്ചിയോട് പറഞ്ഞിരുന്നു ചേച്ചി ഈ ചട്ടീലങ്ങനെ വെള്ളം തങ്ങി നിൽക്കരുത് കാരണം ആ ചെടി ചീഞ്ഞു പോകുമെന്ന് അപ്പം ആ ചേച്ചി ചട്ടീലൊന്നും വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിൽ തന്നെ കൃത്യമായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു അതുകൊണ്ട് വലിയ കുഴപ്പം ഇല്ലാണ്ട് എനിക്ക് സംതൃപ്തമായിട്ട് തന്നെ എൻ്റെ ടൂറ് ആസ്വദിക്കാൻ എനിക്ക് പറ്റി